വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നു ചോദിച്ചാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ അനേകായിരം വ്ലോഗർമാരും അത് യൂട്യൂബ് ചാനലുകളും ഉള്ളതിനാൽ ഒരു ചെറിയ വാർത്ത കിട്ടിയാൽ ചിലപ്പം ഇവർ ഇതിനെ അങ്ങ് വലിയ വിഷയമാക്കി അങ്ങ് വലുതാക്കി ഇതു ചിലപ്പോൾ പലരിൽ നിന്നു കേട്ടതായാലും ചെറിയ ചെറിയ വാർത്തകൾ കേട്ട് കേട്ട് ഇവർ ഇല്ലാത്ത കഥകൾ വരെ പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മൾ ചില വാർത്തകൾ യാഥാർത്ഥ്യമുണ്ട് ശരിയാണ് അതിൽ ചിലപ്പോൾ അതിന് ഓരോരോ കണ്ടൻ്റ് കൂടുന്തോറും ചിലപ്പോൾ കള്ളങ്ങളിലേക്ക് പോകും പിന്നെ എന്തെങ്കിലും ഒരവസരം നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചില വാർത്ത കേട്ടാൽ നമ്മൾ ഇപ്പോഴും വാർത്തകൾ കേട്ടാൽ ചിലപ്പോൾ അത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും ചിലപ്പോൾ അതിങ്ങനെ പല കാ ഓരോ ഇത് ഇങ്ങനെ ഓരോ യോ മാധ്യമങ്ങൾ വഴിയേ നമുക്ക് പല പല വാർത്തകൾ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ സമൂഹത്തെ അതു പല രീതിയിൽ അതു ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രളയം നടക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന വാർത്ത പലർ ഫണ്ട് പിരിക്കുന്നുണ്ട് ഈ ഫണ്ടൊന്നും അവരുടെ കൈകളിൽ എത്തുന്നില്ല അതിനാൽ നിങ്ങൾ ആർക്കും അ കൊടുക്കരുത് അപ്പോൾ ആ ഡെബിറ്റിൽ വരുന്നവർക്ക് ആർക്കും ഈ പൈസകൾ കൊടുക്കരുത് എന്നൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ഇത് കണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത് സത്യസന്ധമായി ഇതിൻ്റെ പുറത്ത് ഇറങ്ങി ജോലി ചെയ്യുന്നവരോ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരോ ആയിരിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ നമ്മൾ പറയും ഇത് നമുക്ക് തരാൻ പറ്റില്ല ഇങ്ങനെ തരാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നു പറയുമ്പോൾ അത് ആ കഷ്ടപ്പെടുന്നവർക്കടെ കൈകളിൽ എത്തേണ്ട കാര്യങ്ങൾ എത്താതെ വരികയാണ് അങ്ങനെ കുറെ വാർത്തകൾ വരുന്നുണ്ട് അല്ലാതെ കുറേ ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട് കുറേ സത്യമായ വാർത്തകളും വരുന്നുണ്ട് കുറെ നുണയായ വാർത്തകൾ വരുന്നുണ്ട് അതിനാൽ നമുക്ക് എങ്ങനെ വ്യത്യാസമുണ്ടെന്നു വെച്ചാൽ പത്ര വാർത്തകൾ വരുമ്പോൾ നമുക്ക് അതു കറക്റ്റായിട്ട് അവർ അന്വേഷിച്ചിട്ട് ആയിരിക്കും വര് വാർത്തകൾ കിട്ടുന്നത് എന്നാൽ ചില വാർത്തകൾ നമുക്ക് അങ്ങനെ സത്യസന്ധമല്ല എന്നു തോന്നാറുണ്ട് അങ്ങ് യൂട്യൂബ് ചാനലുകളായാലും മാധ്യമങ്ങൾ വഴിയും വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പറ്റാത്തതുമായ അനേകം വാർത്തകളുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ സമൂഹമാധ്യമങ്ങള വാർത്തകൾ അധികം വിശ്വസിക്കുന്നില്ല അതിനാൽ അങ്ങനെയെങ്കിൽ എല്ലാ വാർത്തയും നമുക്ക് വിശ്വസിച്ച് അറിയുവാനോ കേൾക്കുവാനോ പറ്റുന്നില്ല ചില സത്യസന്ധമായ വാർത്തകളും നമ്മുടെ വായിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കേട്ട് വെറുതെ അതു കളയുക ചെയ്യുന്നത് അതിൻ്റെ സീരിയസ്നസ് എടുക്കുന്നില്ല പിന്നെ പിന്നെ കുറെ വാർത്തകൾ കേൾക്കാനും പറ്റുന്നുണ്ട് കുറെ സത്യമായിരിക്കാം അതിനകത്ത് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം മാധ്യമങ്ങൾ അതു വലുതാക്കി കാണിച്ച് പല ചാനൽ വഴി വരുമ്പോൾ അതു ചില സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതാക്കാം ചിലപ്പോൾ കുടു കുടുംബ ജീവിതങ്ങൾ തന്നെ ചിലപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടായിപ്പോകുകയാണ് അതുകൊണ്ട് ഒത്തിരി അധികമായിട്ട് അത് ഒരു വാർത്ത ഇപ്പം നമ്മൾ കേൾക്കാനത് ഇപ്പം മനസ്സ് കാണിക്കുന്നില്ല കാരണം അത് എത്ര മാത്രം സത്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരികയാണ് നമ്മൾ വായിക്കാൻ പത്രവാർത്തകളൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സത്യസന്ധത ഉണ്ട് എന്ന് ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എല്ലാ വാർത്തകളും കേൾക്കും പിന്നെ ടി വി വാർത്ത ചാനലിലുള്ള കേൾക്കും അത് അതിൻറ്റേതായ രീതിയിൽ എടുക്കുകയും ചെയ്യും